എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിദ്യാർഥിയാണ് അപ്പം അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പം വൈദ്യുതി എന്ന് പറയ്ന്നത് ഒരുപാട് ഉപയോഗപ്രതമായൊരു കാര്യമാണ് ഇപ്പം എനിക്ക് എൻറ്റേതായ രീതീല് എനിക്ക് വീട്ടിലിര്ന്ന് ക്യാഷുണ്ടാക്ക്ന്ന കൊറച്ച് ഒരുപാട് ഒരൂ ഇപ്പം എല്ലാ ജീവിതത്തിലും ഇപ്പം സോഷ്യൽ മീഡിയലൂടെയാണെല്ലാവരും ജോലി ചെയ്യുന്ന പ്ലാറ്റ്ഫോമെല്ലാം അപ്പം എനിക്ക് വേണ്ടേന്ന് പറഞ്ഞാൽ അപ്പം വൈദ്യുതി എത്രയും ഐൻറ്റേറെ പറ്റോ അത്രയും അത്യാവശ്യമുള്ള ഒരു വ്യക്തി ആണെനിക്കിപ്പം വൈദ്യുതിപോയിക്കഴിഞ്ഞാൽ പിന്നെനിക്ക് അതിന് വേറൊരു മാർഗ്ഗമില്ല ഒന്നും ചെയ്യാനൊക്കെയാണെങ്കിപ്പോലും ഫുൾ ഇൻറ്റർനെറ്റ് വഴിയാണ് അപ്പം വീട്ടിലെ വൈഫൈ കണക്ട് ചെയ്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ എൻറ്റെം എൻ്റെ വർക്കുകൾ മുമ്പോട്ട് കൊണ്ടു പോകണം എന്നുണ്ടെങ്കിൽ എല്ലാ പെൻറ്റിങ്ങില്ലാതെനിക്ക് ക്ലാസ്സ്കള് കാണണം എങ്കിൽ എൻ്റെ വർക്ക്കള് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാട്ട്ഫോർം എനിക്ക് വേണം അതിന് എനിക്ക് വൈദ്യുതി കട്ടായാൽ വേറൊരു മാർഗ്ഗവില്ല ലൈറ്റ് തെളിയിക്കാനോ ഒന്നിനും എനിക്കൊരു മാർഗ്ഗം ഇല്ല അതുകൊണ്ട് എനിക്ക് കറണ്ട് പോയിക്കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാന് പറ്റത്തില്ല വീട്ടിലാണേൽ ഇൻവേട്ടറും ഇല്ല